ആ ജോസഫ് അല്ലെ ആ ജോസഫേ ഞാന് മാനേജരാണ് കമ്പിനിയുടെ മാനേജരാണ് ആ ആ ആ അതെ ഒരു കാര്യം പറയാന് വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചമായിരുന്നു നമ്മളുടെ ടാർഗെറ്റ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിനു ആദ്യമേ തന്നെ അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്

ആ അതെ ഇപ്പോൾ ഒരു കോടി രൂപ നമ്മൾ ടാർഗെറ്റ് ഇട്ടു വെച്ചത് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു പെര്ഫോമന്സ് ആണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് അതിന്റെ അഭിനന്ദനങ്ങൾ ഞാന് ആദ്യമേ തന്നെ അറിയിക്കുകയാണ് അതെ പൊതുവേ മറ്റുള്ള ആളുകളെ വെച്ച് നന്നായിട്ട് കഷ്ട്ടപ്പെട്ടു എന്നത് മനസിലായി സാധാരണ കലൂര് എഴുപത്തഞ്ചു എണ്പത് ലക്ഷത്തില് കൂടുതലൊന്നും പൊതുവേ ആൾക്കാർ പെര്ഫോം ചെയ്യാറില്ലായിരുന്നു ഈ പ്രാവശ്യത്തെ കളക്ഷനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ കളക്ഷന് നമുക്ക് നിലനിര്ത്തികൊണ്ട് പോകണം ഇനി ഇപ്പോൾ അടുത്ത മാ അടുത്ത മാസം മുതൽ നമുക്കത് കൂടുതലായിട്ട് ഒന്നുംകൂടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള മേഖലയില് എന്താ നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും നിര്ദേശങ്ങള് ഉണ്ടോ അതെ കുറച്ച് ഓവര് ടൈം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ ആ ഓക്കേ അത് മതി ആ ആ ആ അപ്പോൾ അത് സാലറിയുടെ കാര്യമൊക്കെ നമുക്ക് ഡയറക്റ്റര് ബോര്ഡിൻ്റെ ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അത് ഡിസ്ക്കസ് ചെയ്യാം ഞാന് ശുപാര്ശ ചെയ്യുകയും ചെയ്യാം ആ അപ്പോൾ അതിൽ നിങ്ങള്ക്ക് ഒരു പ്രമോഷനോട് കൂടെ തരാന് മാനേജ്മെന്റിൽ ഞാനും ആവശ്യപ്പെടാം അപ്പോൾ ആ അപ്പോൾ ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇന്സെന്റീവ് ആയിട്ട് ആ കൂട്ടത്തിൽ ഈ പ്രാവശ്യം മൊത്തം വന്നിരിക്കുന്നത് പേര്സെന്റേജിന്റെ ഒരു പോയിന്റ് ഫൈവ് പേര്സെന്റേജൊക്കെ ക്യാഷ് ആയിട്ട് തന്നെ ബോണസായിട്ട് തരാനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികള്ക്കൊക്കെ നമുക്ക് ചെയ്യാന് പറ്റുമോ എന്ന് ഒന്ന് കൂടിയാലോചിച്ചിട്ട് അറിയിക്കാം അതെ ആ അപ്പോൾ അടുത്തമാസം ഒരു ഇപ്പോൾ ഒരു കോടി എന്നുള്ളത് അടുത്ത മാസം ഒരു രണ്ടു കോടി രൂപ ടാർഗെറ്റിലേയ്ക്ക് നമുക്ക് എത്തിക്കാന് പറ്റുകയില്ലെ ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ

അത് ഓക്കേ ആ അപ്പോൾ അത് നിങ്ങൾ കൂട്ടായിട്ട് നമുക്ക് എല്ലാവര്ക്കും കൂടെ കൂടി ഒന്നുംകൂടെ ഒന്ന് പരിശ്രമിച്ചാല് അത് പറ്റുമെന്നാണ് എന്റെയൊരു അതെ നമ്മുടെ കമ്പനിക്ക് നല്ലയൊരു വളര്ച്ചയും നമുക്ക് ഉണ്ടാക്കി എടുക്കാന് പറ്റും ഇപ്പോൾ ഇത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രകൃതിയൊക്കെ വെച്ച് നോക്കുമ്പം ഇത്രയും ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യവാണ് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ജില്ലകൂടെ നിങ്ങളുടെ പിന്നെ മറ്റേ കീഴിലേയ്ക്ക് അങ്ങോട്ട് വിട്ടാലോ ആ അപ്പോൾ അങ്ങനെയാണെങ്കില് അത് സാലറിയിൽ നമുക്ക് കുറച്ച് വ്യത്യാസം ഒക്കെ വരുത്തി വെക്കാം വരുത്താം ആ അതെ അടുത്ത ബുധനാഴ്ച്ച ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് കമ്പനി അപ്പോൾ നിങ്ങളെ പ്രത്യേകം അതിലേയ്ക്ക് വിളിച്ച് ആദരിക്കാന് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്

ആ അതെ അതെ അത് നല്ല ആത്മാര്ത്ഥമായിട്ടുള്ള ഒരു വർക്കായിരുന്നു അപ്പോൾ അത് കമ്പനിയിൽ മറ്റേ നമ്മുടെ മുകളിൽ ഉള്ള ആളുകള്ക്കൊക്കെ അത് വളരെ ഇഷ്ട്ടപ്പെട്ടു അവർ പ്രത്യേകിച്ച് അപ്പ്രീസിയേഷന് പറയണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുംകൂടെ മെച്ചപ്പെട്ട പ്രകടനം ആ നടത്താം അപ്പോൾ നാളെ നമുക്ക് നേരില് കാണാം നാളെ സമയം കിട്ടുമ്പോൾ എന്റെ ഓഫീസ് വരെ ഒന്ന് വരുന്ന വന്നാൽ മതി ഓക്കെ അത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കേ ശരി ശരി ശരി ശരി ശരി ഓക്കേ